അന്നത്തെ കാലത്ത് ഇന്ത്യക്കാരൊക്കെ നാട് കടക്കാൻ നോക്കിയതാണ് കാരണം തൊഴിലില്ലാണ്ട് പറ്റണില്ല മനസ്സിലായി കാര്യങ്ങളൊന്നും വീട്ടിൽ നടക്കുന്നില്ല അതു കൊണ്ട് ഇന്ത്യക്കാരൊക്കെ നാട് വിടുകയാണ് എന്നിട്ട് പിന്നെ തൊഴിലിനെ പറ്റി ചോദിച്ച് കഴിഞ്ഞാൽ ഞാനും പോയിട്ടുണ്ട് തൊഴിൽ പണിക്ക് എന്ന് വച്ചാൽ ഈ മറ്റേ പ്ലംമ്പിങ് വയറിങ്ങ് അതിന്റെ ഒക്കെ പണിക്ക് പോയിട്ടുണ്ട് പിന്നെ അവിടെ ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ എടുത്തതായിരുന്നു സയൻസ് അപ്പം അങ്ങനെ അതിൻ്റെ ഒരു പണിക്ക് പോയിട്ടുണ്ട് അങ്ങനെ പണിക്ക് പോയി അവിടുത്തെ ആശാൻ എന്ന് ഭയങ്കര ഭയങ്കര ചൂടനാണ് പുള്ളിക്കാരൻ മനസ്സിലായോ ഞാൻ ആദ്യമായിട്ട് ഹെൽപ്പർ ആയിട്ട് ചെല്ലുന്നതാണ് കുറച്ച് അറിവേ ഉള്ളു ഹെൽപ്പർ ആയിട്ട് ചെല്ലുന്നതാണ് അപ്പം പുള്ളിയാണെങ്കിൽ ഭയങ്കര റൂഡ് ആയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ ഈ പുള്ളീനെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ പുള്ളി എന്നോട് എന്തോ ഇതിന് മുന്നേ കണ്ട കണ്ട പോലെയാണ് എന്നോട് അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് മിംഗ്ൾ ആകാൻ നോക്കിയപ്പം പുള്ളി എന്ത് ചെയ്താലും മിംഗൾ ആകണില്ല അതിൽ അല്ല കാര്യം പണിയെടുത്തപ്പം ഞാൻ ഹെൽപ്പർ ആയിട്ട് കയറിയതാണ് അപ്പോൾ ആശാനാണല്ലോ നമുക്ക് ആശാനായിട്ടുള്ളതിൽ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഹെൽപ്പർ എന്നുള്ള ബേസിൽ ഞാൻ ഞാൻ ഇങ്ങനെ നിന്ന് നിന്ന് നിന്ന് കഴിഞ്ഞപ്പം പുള്ളി എന്നോട് അത് ചെയ്യ് ഇത് ചെയ്യ് ഞാനൊരു ഹെൽപ്പർ ആയിട്ടല്ലേ കയറിയത് ഹെൽപ്പർ ആയിട്ട് കയറിയ എന്നെ കുറേ ചീത്തയും പറഞ്ഞ് നിന്നെ നിന്നെ കൊണ്ട് പറ്റുന്ന പണിയൊന്നും അല്ല ഇത് അങ്ങനെ കുറേ ചീത്ത പറഞ്ഞ് പിന്നെ ആകേ ശോകമായി അതോടെ ഒന്നും പറഞ്ഞില്ല കേട്ടോ തിരിച്ച് പിന്നെ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ പ്ലംബിങ്ങിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് ഇവിടെ എൻ്റെ വീടിൻ്റെ പണിക്ക് തന്നെ വാർക്ക് പണിക്ക് തന്നെ ഞാൻ ഇവിടെ ബായമാർ സഹായിച്ചിട്ടുണ്ട് ഞാനും വാപ്പച്ചീൻ്റെ വല്ലുപ്പയൊക്കെ ചേർന്ന് ഭായമാർ സഹായിച്ചിട്ടുണ്ട് മരം വെട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് വരുക തന്നെയാണ് ഇപ്പം അങ്ങനെ പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ പിന്നെ രണ്ട് മൂന്ന് കടകളിലൊക്കെ പോയി നിന്നിട്ടുണ്ട് തൊഴിലായിട്ട് പോലെ മനസ്സിലായോ ഈ രണ്ട് മൂന്ന് തുണിക്കടകളിൽ ബേക്കറി കട പോയിട്ട് ക്യാഷിയറിലിരുന്ന് പിന്നെ ചിലയിടത്ത് സപ്ലൈ ആയിട്ട് ഇന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് പോയിട്ടുള്ളത് ഇവിടാണ് ഈ പറഞ്ഞ പ്ലംബിങ്ങിൻ്റെ അപ്പോൾ ഈ കാശ് കിട്ടി പണി എടുത്ത് കൊടുത്ത് ഹെൽപ്പർ ആയിട്ടാണല്ലോ പോയത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഹെല്പ്പ ചെയ്ത് കൊടുത്ത് പക്ഷേ പുള്ളിക്ക് എന്നിട്ടും തൃപ്തിയായിട്ടില്ല